ഇന്നലെ ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെയാണ് വിളിച്ചത് മഹേഷ് എന്നല്ലേ പേര് ആ അതെ അതെ അതെ ഇന്നലെ വൈകുന്നേരം ഒരു രാത്രിയായിരുന്നു എന്നെ വീട്ടിൽക്കൊണ്ടു വിട്ടത് ആ അല്ല കംപ്ലൈൻ്റൊന്നും പറയാൻ വിളിച്ചതല്ല നല്ലൊരു ആണ് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് ആ അതെ അതെ അതെ കാരണം ഞാൻ ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ നമ്പർ അതിനായിരുന്നു മേടിച്ചത് അപ്പോൾ ഇന്നെലെയെനിക്ക് സമയം കിട്ടില്ലായിരുന്നു അപ്പം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു അപ്പം അമ്മേൻ്റെ അടുത്തേക്ക് വേറെയാരും വിളിച്ച് വന്നില്ല അപ്പോൾ നിങ്ങൾ അവിടെ നിന്നു വഴിക്കിൽ നിന്നു ഞാൻ നിൽക്കുന്നത് കണ്ടിട്ട് വേറൊരു വണ്ടിയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അതെ അതെ അതെ ആ അപ്പോൾ ആ അതെ അതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മനസ്സാക്ഷി ഉള്ളതു കൊണ്ടാണ് നിങ്ങൾ നിർത്തിയത് നിങ്ങളൊരു അതെ നല്ലൊരു കാര്യമാണ് ചെയ്തത് അതെ അതെ അതെ ആ അത് പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാണ് ഓക്കേ ഓക്കേ ഓക്കേ തേങ്ക് യൂ